ഉൾനാടുകളിൽ ഭൂമി സ്വന്തമാക്കാനും ഭൂസ്വത്ത് അവകാശങ്ങൾക്കുമായി കർഷകൻ ഒത്തിരി കാര്യങ്ങളാണ് ഇപ്പോൾ അഭിമുഖീകരിച്ച് കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഭൂമികളെല്ലാം സർക്കാരിൻ്റെ അധീനതയിലും അവകാശത്തിൽ പെട്ട കാര്യങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് കൂടാതെ ഇത് നമുക്ക് സ്വന്തമാക്കുക എന്ന് പറയുന്നത് നമുക്ക് അവകാശം എഴുതി തരുന്നത് ഇത് വനഭൂമിയാണെങ്കിൽ ആ വനഭൂമി വനം വകുപ്പിൻ്റെ കീഴിലും സർക്കാർ ഭൂമികൾ ഒക്കെയാണെങ്കിൽ അത് സർക്കാരിൻ്റെ അധീനതയിലും ആണ് അത് ഭൂ പിന്നെ കർഷകന് കൃഷി ചെയ്യാൻ പാട്ടത്തിനു കൊടുക്കാവുന്ന വ്യവസ്ഥയുണ്ട് പിന്നെ പട്ടയം കൊടുത്ത് കൊടുക്കാവുന്ന വ്യവസ്ഥയുണ്ട് ഇപ്പം ഇടുക്കി ജില്ലയിലൊക്കെ ഇഷ്ട്ടം പോലെ പിന്നെ കർഷകർക്ക് പട്ടയങ്ങൾ കൊടുത്ത് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഉണ്ടാകുന്നത് കർഷകൻ അത് കർഷകനാണെന്ന് തെളിയിക്കുകയും അവിടെ കൃഷി ചെയ്യുകയും ആ കൃഷിയിൽ നിന്ന് അവന് വരുമാനം ഉണ്ടായി അവനും അവൻ്റെ കുടുംബവും നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അഭിവൃദ്ധയായ അഭിമാന്യമായ കേരള സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ കാർഷിക മേഖലക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാ ഇതാ ഉദാഹരണമാണ് അതും കൂടാതെ ഈ ഈ എന്തെങ്കിലും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ റവന്യൂ വകുപ്പുമായിട്ടാണ് ബന്ധപ്പെടുന്നത് ഈ റവന്യൂ വകുപ്പ് സാങ്ഷൻ തന്നാൽ അവരത് വില്ലേജാപ്പീസിലോട്ട് വിട്ട് വില്ലേജാപ്പീസിൽ നിന്ന് നമ്മളുടെ കണക്ക് കൂട്ടി നമ്മളുടെ പേരും നാളും കൊടുത്ത് ഈ വില്ലേജാപ്പീസിൽ നിന്ന് റവന്യൂ വകുപ്പിന് വിട്ട് റവന്യൂ വകുപ്പാണ് നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളായിട്ട് തരണ്ടിയത് അത് സർക്കാർ തലത്തിൽ അതിനൊരു തീരുമാനമുണ്ടായാലേ നമുക്കങ്ങനെ കിട്ടുകയുള്ളു ഈ ഇടെ ഒത്തിരിപ്പേർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് അത് ആ പട്ടയം കൊടുത്തത് കൊണ്ട് അവിടെ എല്ലാവരും കൃഷി ചെയ്ത് ഇത് വനത്തിൻ്റെ അതിർത്തിലുള്ള ഭൂമിയായ കൊണ്ട് വന ഇപ്പോൾ വനപാലകർ അതിനെ തടയുകയും എടുക്കുമൊക്കെ ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നടന്ന് കൊണ്ടിരിപ്പുണ്ട് അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് ഒഴിവാകണങ്കിൽ റവന്യൂ വകുപ്പും കൂടെ കൂടി ആലോചിച്ച് നമ്മടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പിന്നെ നമ്മളെ അവരെയാണ് നമ്മൾ സമീപിക്കുന്നത്